നമ്മളോരോ ഫുഡ്ഡുണ്ടാക്കുന്നത് ഓരോ രീതിയിലാണ് അപ്പോൾ ഓരോ ഫുഡ്ഡിനും അതിൻടേതായ സമയങ്ങളും ടേസ്റ്റുകളുമൊക്കെ ആയിരിക്കും ഉണ്ടാവുന്നത് അപ്പം നമുക്ക് കൂടുതൽ നമ്മള് ഡെയിലി ഉണ്ടാക്കുന്ന ഫുഡുകളൊക്കെ അതിനനുസരിച്ചൊക്കെ ഭയങ്കര സിമ്പിളാണ് സമയവും കുറവാണ് നമുക്ക് എല്ലാവർക്കുവുണ്ടാക്കാന് പറ്റും പക്ഷേ ജെങ്ക് ഫുഡ്ഡ് എന്ന് വെച്ചാൽ ഈ കേക്ക് ബേക്കറി ഐറ്റംസ്സ് അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കുമ്പം നമുക്ക് കൂടുതലും ടൈം സ്പെൻഡ് ചെയ്യണം അതിനനുസരിച്ച് ടേസ്റ്റും ഉണ്ടാകും പക്ഷേ ഭയങ്കര പാടായിരിക്കും ചില സമയത്തത് ഫ്ലോപ്പായി പോകാം പക്ഷേ നമ്മുടെ സാദാ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഇഡിലീ ദോശാ ചപ്പാത്തീ ഇടിയപ്പം അങ്ങനത്തെ ഉള്ള സാധങ്ങൾ ഒക്കെ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് നമുക്ക് പെട്ടന്ന് പറ്റും എന്നന്ന് വെച്ചാൽ നമ്മള് ഡെയിലി ഉണ്ടാക്കുന്നതുമാണ് സിമ്പളാണത് ഓരോന്നൊക്കെ ചെയ്ത് വെയ്ക്കാനും തലേ ദിവസമോരോന്ന് ഇപ്പം ദോശക്കാണെൽ തലേ ദിവസം അരച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം നമുക്ക് അതൊന്ന് പരത്തിയെടുക്കാ പിന്നെ ഇഡിലി ആണെങ്കിൽ ഇഡലി തട്ടിലേക്കൊഴിച്ച് അങ്ങനെ ഒക്കെ ചെയ്യാവുന്നതാണ് പക്ഷെ കേക്കാകുമ്പോൾ അതിന് അനുസരിച്ചുള്ള സാധനങ്ങള് മേടിക്കുമ്പോഴും അതിന് അനുസരിച്ച് നല്ല റേറ്റുകളാണ് എല്ലാം ഒക്കെ ആകും കേക്കാണെങ്കിൽ ഉണ്ടാക്കുന്നത് എന്ന് വെച്ചാൽ ഉണ്ടാക്കണമെങ്കിൽ തന്നെ അതിന് കൂടുതലും ഓവൻ ഉള്ളതാണ് നല്ലത് ഇപ്പോൾ ഓവനില്ലാണ്ടും ഉണ്ടാക്കുന്നുണ്ട് കുക്കറിലൊക്കെ വെച്ച് പക്ഷേ ചിലവരുടേത് ഫ്ലോപ്പായി പോകും ചിലപ്പം എങ്കിൽ കേക്കിൻ്റെ ആ ഒരു ബ്രഡ് ഉണ്ടാക്കുമ്പോൾ അത് പൊന്താനക്കെയായിട്ട് ശെരിയാവില്ല അങ്ങനെ തന്നെ ഇരിക്കും അതൊക്കെ നമ്മൾ കൂട്തല് അതിനേക്കുറിച്ച് പഠിച്ചൊക്കെ വേണം നമ്മളത് ചെയ്യാനൊക്കെ ആയിട്ട് പിന്നെ സ്നാക്സൈറ്റംസ്സുണ്ടാക്കുമ്പൊ സമൂസ പപ്പ്സ്സ് അങ്ങനെ ഒക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര കുറച്ച് ടൈമ് വേണം അതൊക്കെ ഉണ്ടാക്കാനായിട്ട് പിന്നെ ബേക്കറി ഐറ്റംസ്സ് ചിപ്പ്സെന്ന് പറയുമ്പം മിച്ചറ് അങ്ങനത്തെ സാധനം അതിനൊക്കെ കൂടുതൽ സാധനങ്ങള് നമ്മളതിന് മേടിയ്ക്കുകയും അതിനനുസരിച്ച് ചെയ്യുകയും ഒക്കെ വേണം ഇപ്പം നമുക്ക് കൂടുതൽ ഹെൽപ്പിനാരെങ്കിലുവുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ സമയം നമുക്ക് ചെയ്യാനൊരു ഹെൽഫുള്ളായിട്ടവരുണ്ടാവും എന്നാലും നമുക്ക് ഭയങ്കര പാടായിരിക്കും പിന്നെ അതിനുള്ള സാധനങ്ങള് മേടിക്കുമ്പം അതിനൊക്കെയുള്ള പൈസകളും അതിനനുസരിച്ച് കുറച്ച് കൂടുതലായിരിക്കും നമ്മുടെ സാധേ സാദാ നമ്മളുണ്ടാക്കണെ വീട്ടിലുണ്ടാക്കാണ നമ്മടമ്മമാരുണ്ടാക്കണ സാധനങ്ങളെല്ലാം പൈസകള് കുറവാണ് നമുക്ക് റേഷൻ കടയിൽ നിന്നൊക്കെ നമുക്ക് അതിനനുസരിച്ച് പൈ പൈസ കുറവിനൊക്കെ സാധനങ്ങളക്കെ കിട്ടുമല്ലോ അപ്പം അങ്ങനെ ഒക്കെ നമുക്ക് കിട്ടുമ്പം നമ്മളങ്ങനെ അതിനനുസരിച്ച് ചെയ്യും സമയമെടുത്ത് എല്ലാത്തിനും അതിൻടേതായ പാടുണ്ട് പക്ഷേ ബേക്കറി ഐറ്റംസ്സൊക്കെ പിന്നെ സ്നാക്സ്സ് കേക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത് നമ്മൾ അതിനനുസരിച്ച് കൂടുതൽ കോൺസൺട്രേറ്റ് ചെയ്തിരുന്നാൽ ആണ് നമുക്ക് കൂട്തല് ടേസ്റ്റോടുണ്ടാക്കാന് പറ്റും